ആ സാർ ഞാൻ കോച്ചിങ്ങിന് ഷിജിത്ത് സാറല്ലേ ആ ഞാൻ ഫുട്ബാൾ കോച്ചിങ്ങിനു ചേരണം എന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കതിൻ്റെ കുറച്ചു ഡീറ്റൈൽ ആയിട്ടൊന്നും അറിയില്ല ഞനിതുവരെ എവിടേയും കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല കളിയ്ക്കാൻ മാത്രമേ പോവാറുള്ളു എന്താണെന്ന് ഡീറ്റൈലായിട്ടൊന്നു പറഞ്ഞു തരുമോ അതിൻ്റെ ഞാൻ ഫോർവേഡാണ് കളിക്കാറ് ഫോർവേഡും മിഡും കളിക്കും കോച്ചിങ്ങിനായിട്ടു പോയിട്ടില്ല കളിക്കാനൊക്കെ പോയിട്ടുണ്ട് ക്ലബ് വൈസ് വീട് ഇവിടെ തന്നെയാണ് ഇവിടെ നിന്നൊരു ആ ഒരു പത്ത് പത്ത് കിലോമീറ്റൻ്റെ ചുറ്റളവിൽ അതെയല്ലെ ഇപ്പോൾ ഡെയ്ലി നമുക്ക് പോയി വരിക പറഞ്ഞാൽ പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എട്ട് ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് പോയി വരിക പറഞ്ഞാൽ പോസ്സിബിൾ ആയിരിക്കുമോ നമുക്ക് രാവിലെ പോയി എത്താൻ എത്ര മണിക്കാണ് രാവിലെ ക്ലാസ്സ് ആറു മണി എന്താണ് ഞാനിപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അതെയല്ലേ അപ്പോൾ ആ നമുക്കിപ്പോൾ ഇവിടെ ഹോസ്റ്റൽ സൗകര്യം എന്തെങ്കിലും ഉണ്ടാകുമോ അതെയല്ലേ അപ്പോൾ ആ കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ തന്നെയാണ് എൻ്റെ അമ്മേൻ്റെ വീടിവിടെ അടുത്താണ് സ്കൂളിൻ്റെ അവിടെ നിന്ന് ഒരു ആ ഒന്നര രണ്ടു കിലോമീറ്ററെ ഉള്ളു അങ്ങനെ ആണെങ്കിൽ അല്ല എനിക്ക് ഫുട്ബോൾ എനിക്ക് ഡെയ്ലി കോച്ചിംഗ് കിട്ടിയാലാണ് മുന്നോട്ടു പോകാൻ പറ്റുള്ളൂ അപ്പോൾ കളിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവിടെയെൻ്റെ അടുത്തൊന്നും അങ്ങനെ കോച്ചിംഗ് കൊടുക്കണ സ്ഥലമില്ല വൈകുന്നേരം ഉണ്ടാവുമോ കോച്ചിംഗ് എങ്ങനത്തെ വർക്കൗട്ടാണ് ഇവിടെ സാധാരണ കൊടുക്കാറ്

ഉം ഓക്കെ നമുക്കിപ്പോൾ അതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുമോ അതോ നമ്മൾ പുറത്തു നിന്ന് സെപ്പറേറ്റ് മേടിക്കേണ്ടി വരുമോ അതെ ആ കുഴപ്പമില്ല ഇവിടെ ഫീസ് എങ്ങനെയാണ് എന്താണ് റേറ്റ്

ഓക്കെ അല്ല ഞാൻ ഡെയ്ലി വരാം നോക്കാം എനിക്ക് ഡെയ്ലി വരണം എന്നാണ് ആഗ്രഹം അപ്പോൾ ആ അല്ല ഇപ്പോൾ തൽക്കാലം ഇവിടെ ഹോസ്റ്റൽ സൗകര്യം ആവണ വരെ ഞാൻ ഇപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ നിന്നിട്ട് വന്നിട്ടു പോകാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കന്നത് ഹോസ്റ്റലോ ഓക്കെ ആ ആ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് പ്ലാനിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഹോസ്റ്റൽ സൗകര്യം കൂടി റെഡിയായി നമുക്ക് ഇവിടെ നിന്നുതന്നെ ചെയ്യാമല്ലോ അല്ലേ സാർ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ഒന്ന് വിട്ടീലും കൂടി പറഞ്ഞിട്ട് ഞാൻ വന്നു ചേരാം സാർ ആ ഓക്കെ ഓക്കെ ആ അതു കുഴപ്പമില്ല

ഒക്കെ ഓക്കെ ശരി സാർ ഓക്കെ താങ്ക് യു